എൻ്റെ ജന്മദിന സമ്മാന ഓർഡർ ഇതുവരെ എത്തി ചേർന്നിട്ടില്ല ഞാൻ ആദ്യമായി ചെയ്യുക ആ ഓർഡർ ചെയ്ത ആപ്ലിക്കേഷനിൽ പോയി തിരയും എന്നതാണ് എനിക്ക് ഓർഡറിന് ഒരു ഓർഡർ കൺഫർമേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും ആ ഓർഡർ കൺഫർമേഷൻ നമ്പർ വെച്ച് ഏത് ആപ്ലിക്കേഷനിൽ കൂടെയാണോ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് കൂടെയാണോ ഏത് ബ്രൗസറിൽ കൂടെയാണോ ഞാനതിൽ പോയി സെർച്ച് ചെയ്ത് ട്രാക്കിംഗ് ലഭ്യമാണോ എന്നറിയിക്കുന്നു ഉടനെ എത്തുന്നതാണെങ്കിൽ ഞാനത് ആക്സപ്റ്റ് ചെയ്യും ഇനി അതല്ല അതിലെന്തങ്കിലും ഡിലേ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാൻ ശ്രമിക്കും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടതിന് ശേഷം എൻ്റെ ഓർഡർ വിശദാംശങ്ങൾ നൽകുകയും എന്നിട്ട് എൻ്റെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും ഇനി ഓർഡർ വൈകുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കും എത്ര ദിവസത്തിനകം ഈ ഓർഡർ എൻ്റെടുത്ത് എത്തി ചേരാൻ സാധിക്കുമെന്നതിനുള്ള വ്യക്തത ഞാൻ അവരിൽ നിന്ന് വരുത്തും ഇനി അടുത്ത ഒരു ഓപ്ഷനാണ് ഞാൻ നേരിട്ട് തിരഞ്ഞ് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് കൈപ്പറ്റാൻ പറ്റുമോന്ന് ഞാൻ സന്തോഷവാനാണ്